ആഹ് അതെ പനി ഉണ്ടോ ആഹ് ആഹ് ആഹ് പേര് എന്തായിരുന്നു രാഹുൽ എവിടെ നിന്ന് ആയിരുന്നു വരുന്നത് എത്ര വയസ്സായി ഇരുപത്തേഴ് അല്ലേ തലേ ദിവസം പനി എങ്ങനെ പനി വല്ലാണ്ട് ഉണ്ടായിരുന്നോ തലേ ദിവസം ഒക്കെ പനി പിടിച്ചത് ആഹ് മഴ മഴവെള്ളം നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിയതാണ് നീർക്കെട്ട് അങ്ങനെ എന്തെങ്കിലും തൊണ്ട വേദനയോ നെഞ്ചുവേദന ഉണ്ട് ഗ്യാസിൻ്റെ എന്തെങ്കിലും ഗുളികയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ വേദന ആയിരിക്കും അല്ലെ ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ് അത് ഈ വെള്ളം ഇറങ്ങിയതിൻ്റെ ആണ് ഒന്നാമത് ആഹ് അപ്പം ഗുളിക എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ കഴിച്ചായിരുന്നു എന്നിട്ട് കുറവില്ലേ ആഹ് ഓക്കെ ഇങ്ങനെ എന്താ പറയുക തൊട്ടതിനും പിടിച്ചതിനൊന്നും പാരസിറ്റമോൾ അങ്ങനെ കഴിക്കരുത് കേട്ടോ ആഹ് കാണിച്ചിട്ട് ആഹ് അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവില്ലെ ലേശം

കൂടി ആഹ് ഓക്കെ ഓക്കെ പിന്നേ മറ്റെ വോമിറ്റിംഗോ അങ്ങനെ എന്തെങ്കിലും വായയ്ക്ക് കയ്പ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആഹ് അത് പനീൻ്റെ ആണ് എന്നാ നല്ല പനി ഉണ്ടെങ്കിൽ വായിക്ക് അങ്ങനെ കയ്പ്പുണ്ടാകും ആഹ് പിന്നേ അടുത്ത് ആ അവിടെ വേറെ വീടിൻ്റെ അടുത്ത് ആർക്കെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലേ ആഹ് ഓക്കെ ഇപ്പോൾ അങ്ങനെ കുറെ വൈറൽ ഫീവർ അങ്ങനത്തെ എല്ലാം വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ആണ് ചോദിച്ചത് ഡെങ്കിപ്പനി ആഹ് ചിലപ്പോൾ അതും ആയിരിക്കാം അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം യൂറിൻ ടെസ്റ്റ് ചെയ്യണം ഈ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വന്ന് കൊണ്ടുക്കാണിക്കുക ആഹ് എന്നിട്ട് മരുന്ന് എഴുതുന്നത് ആയിരിക്കും നല്ലത് കാരണം ഈ വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ ആഹ് ഓക്കെ ഓക്കെ അപ്പോൾ നാളെ ഒന്ന് രാവിലെ ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കൊണ്ടുക്കാണിക്കൂ കേട്ടോ ആഹ് ഓക്കെ എന്നാൽ